ഹലോ ആ ഏഞ്ചല് നേഴ്സറിയല്ലേ ഇത് ആ ഞാനെ കഴിഞ്ഞദിവസം അവിടുന്ന് ഒരു ചെടി മേടിച്ച് ഒരു ഓര്ക്കിഡ് മേടിച്ചായിരുന്നെ അപ്പോൾ ഇന്ന് ആയപ്പഴ്ത്തേന് അതിനൊരു ചെറിയ വാട്ടലുപോലെ ഉണ്ട് അപ്പം അതിനെ ആ എന്താണ് ചെയ്യേണ്ടത് ആ അപ്പോൾ നമുക്ക് അതിന് നല്ലതായിട്ട് പൂവൊക്കെ ഇടാനായിട്ട് എന്താണ് അതിന്റെ വളം ചേര്ക്കേണ്ടത് ആ ആ ശരി ശരി ശരി ആ ഓക്കെ ഞാനവിടുന്ന് ഇത് വേറെ ഒരു ചെടിയൂടെ മേടിച്ചായിരുന്നു നമ്മുടെ റോസ് ലില്ലീടെ ഇത് മേടിച്ചായിരുന്നു പക്ഷെ ഞാൻ അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് പുഴു ന്റെ ഒരു ശല്യം കൂടുതലായിട്ട് വരുന്നു അതിന്റെ ലീഫ് എല്ലാം പുഴു തിന്നുപോകുന്നു റോസ് ലില്ലിയും വൈറ്റ് ലില്ലീം മേടിച്ചായിരുന്നു

അത് പറ്റും ആ ഓക്കെ ആ ആ ശരി ശരി ആ എനിക്ക് നല്ല പുതിയ ഇനം ചെടി എന്തെങ്കിലും കൂടെ കൂടെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് ഞാൻ വരാം എനിക്ക് അതിനെ വേണം തൈ വേണം അതെയതെ ഓക്കെ ആ ഉണ്ട് ആ ഉണ്ട് ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ നമുക്ക് തെങ്ങ് കുഴപ്പം ഒന്നും ഇല്ല അ എ ആ ആ ഓക്കെ യോക്കെ ആ ശരി എന്നാൽ അതിന് എനിക്ക് രണ്ട് സപ്പോട്ടയുടെ തയ്യ് ഒക്കെ വേണം സപ്പോട്ട് ഓക്കെ ഓക്കെ ആ ശരി